ഹലോ ഹലോ അതെയല്ലോ ഏജെൻസിയാണ് ആ ചോദിച്ചുകൊള്ളൂ ആ അപ്പോയിൻമെൻറ്റല്ല ഒന്ന് നേരത്തെയൊന്ന് വിളിച്ച് പറയുകയായിരുന്നെങ്കില് ഉപകാരമായിരുന്നു എന്താണെന്നുവെച്ചാല് ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് അപ്പോള് നിങ്ങള് വിളിച്ച് പറഞ്ഞില്ലെങ്കില് അങ്ങനെ ഞങ്ങൾക്ക് ആൾക്കാരിങ്ങനെ വിളിച്ച് പറയുന്നതുകൊണ്ട് നേരത്തെകാലത്ത് ബുക്ക് ചെയ്ത് മ്മ് സ്ഥലം അവിടെ നാല് വണ്ടികൾക്ക് വാഷ് ചെയ്യാനുള്ള സ്ഥലമേയുള്ളൂ ഇപ്പം നിലവില് ഞങ്ങള് എക്സ്പാൻറ്റ് ചെയ്യാന് നോക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അപ്പം നാല് വണ്ടികളായതുകൊണ്ട് നിങ്ങള് നേരത്തെ വിളിച്ചുപറഞ്ഞാല് അതിനനുസരിച്ചേ സ്ലോട്ട് ബുക്ക് ചെയ്യാന് പറ്റുകയുള്ളൂ വിളിച്ചുപറയാതെ ഇപ്പോള്ത്തന്നെ വന്നാല്പ്പിന്നെ അങ്ങനെ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ അതാണ് പ്രശ്നം അതും പിന്നെ ഇന്നോവയ്ക്ക് നല്ല സൈസുമല്ലേ

ഈയാഴ്ച ഒരു ഇല്ല കലണ്ടര് നോക്കട്ടെ ആ ഇവിടെയൊരു വെള്ളിയാഴ്ച പറ്റുമോ അല്ല വെള്ളിയാഴ്ചയല്ല വെള്ളിയാഴ്ച ബുക്ക്ഡാണ് നിങ്ങള്ക്ക് ബുധനാഴ്ച പറ്റുമോ ബുധനാഴ്ച ഓക്കെയാണോ എന്നാല് ബുധനാഴ്ചയൊരു ഒരു രണ്ട് മണിയൊക്കെയാകുമ്പോഴേക്കും ആ അന്നത്തേക്ക് ഞങ്ങൾക്ക് മിക്കവാറും ഇത്തിരി തിരക്ക് കുറവുള്ള സമയമാണ് അപ്പോള് അന്നേരത്തേക്ക് വെച്ചോളൂ ഇന്നോവയായതുകൊണ്ട് ചിലപ്പോള് മിക്കവാറും ഇത് ഫുൾ സർവ്വീസാണോ അതോ എക്സ്റ്റീരിയർ മാത്രം വാഷ് ചെയ്യാനാണോ ആ ഫുൾ വാഷിങ്ങെന്ന് പറഞ്ഞാല് ഒരൊന്നര മണിക്കൂർ പിടിക്കുമായിരിക്കും ഇന്നോവ അല്ല അതല്ല പറഞ്ഞത് ഇന്നോവ ഇത്തിരി വലിയ വണ്ടിയായതുകൊണ്ട് ഞങ്ങളുടെ ഇൻറ്റീരിയറും ഫുൾ വാഷ് ചെയ്യണമെങ്കില് ഇത്തിരി സമയമെടുക്കും അതും വാഷിങ്ങുമുണ്ട് പിന്നെ ഇത് അകം മുഴുവൻ പോളിഷും ചെയ്യണമല്ലോ അതുപോലത്തെ പാക്കേജായതുകൊണ്ട് ഇത്തിരി സമയമെടുക്കും അങ്ങനെ സമയം ലഭിക്കണമെങ്കില് എക്സ്റ്റീരിയര് നോക്കിയാല് മതി എക്സ്റ്റീരിയറാണെങ്കില്പ്പിന്നെ എന്താണ് ആഹാ ആ നോക്കണം ഫുൾ വാഷ് ഫുൾ വാഷ് വരികയാണെങ്കില് നമുക്കൊരു ഒരു സെവൻ ഫിഫ്റ്റി മേടിക്കും സെവൻ ഫിഫ്റ്റി റുപ്പീസാകും ആ എല്ലാംക്കൂടെ കൂട്ടിയിട്ടാണ് സെവൻ ഫിഫ്റ്റിയെന്ന് പറയുന്നത് ആ നിങ്ങള് തന്നെ കൊണ്ടുതരേണ്ടി വരുമായിരിക്കും അതായത് ഞങ്ങൾക്കിവിടെ അങ്ങനെ പിക്കപ്പ് സർവീസിന് ഞങ്ങൾക്ക് ആൾക്കാരില്ല ഇപ്പം അവിടെയാ ഷോട്ടേജുള്ളതുകൊണ്ട് സ്റ്റാഫൊന്നും അങ്ങനെ അപ്ലൈ ചെയ്യുന്നുമില്ല അപ്പോള് അങ്ങനെ അതുകൊണ്ടുതന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നെങ്കില് ഇവിടെ അത്രയും ഉപകാരമായിരുന്നു ടയര് മാറ്റുമോയെന്ന് ഞങ്ങളുടെ തൊട്ടിപ്പുറത്തൊരു കടയുണ്ട് ആ ഞങ്ങളുടെയൊക്കെ സ്ഥലമാണ് അവിടെച്ചെന്നാല് നിങ്ങള്ക്ക് ഇവിടെ ടയറൊക്കെ മാറ്റിത്തരുന്ന സർവ്വീസുണ്ട് ഞങ്ങളുടെ ഈ ബിൽഡിങ്ങ് ഫുൾ ഇത് മാത്രമേയുള്ളൂ ആ വാഷിംഗ് മാത്രമേയുള്ളൂ രാവിലെയൊരു ഞങ്ങൾക്കിവിടെ ഒരു ഒമ്പതര തൊട്ട് വൈകുന്നേരം ആറ് മണി വരെ ആ ഓക്കെയെന്നാല്